ഇപ്പം നമ്മുടെ ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അതായത് കേരളത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതരത്തിലുള്ള അതായത് കലകളും ഇപ്പോൾ സാഹിത്യം ആയിക്കോട്ടെ സംഗീതം ആയിക്കോട്ടെ ശാസ്ത്രം ആയിക്കോട്ടെ സാങ്കേതികവിദ്യ ആയിക്കോട്ടെ നമ്മൾ എല്ലാറ്റിലും ഒരു പടി മുന്നിൽ തന്നെയാണ് നമ്മൾ കേരളീയർ കേരളീയർ എന്ന് പറഞ്ഞാൽ കേരളമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ നാടാണ് അതുപോലെതന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ കേരളത്തിലെ കുട്ടികളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാർ ആണെങ്കിലും ഭയങ്കര സഹകരണമാണ് എല്ലാറ്റിലും അതേപോലെ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാനും അത് പഠിക്കാനും പഠിച്ചെടുക്കാനും സ്റ്റേജുകളിൽ അവതരിപ്പിക്കാനും സ്റ്റേറ്റ് അതായത് സംസ്ഥാനത്തിലും അതിനുപുറമേ ദേശീയതലത്തിൽ ഒക്കെ പോയി ഒരുപാട് മെഡലുകളും കാര്യങ്ങളൊക്കെ മേടിക്കാനും എല്ലാത്തിനും ഉഷാറുള്ള കുട്ടികളാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയ്ക്കുവേണ്ടി അതായത് പിന്നെ ലോകത്തിനും ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമ്മൾ പിന്നെ കലാപരമായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഗീതം ആയിട്ടാണെങ്കിലും പുള്ളുവൻപാട്ട് ക്ഷേത്രം അങ്ങനെയുള്ള പുള്ളുവൻ പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കേരളത്തിലുണ്ട് അതൊക്കെ നമ്മൾ സംഭാവന ചെയ്തതാണ് നമ്മുടെ ഇന്ത്യയ്ക്കുവേണ്ടി